ഹേയ് സിമി ഇത് ഞാനാണ് സനു എൻ്റെ വീടിൻ്റെ അവിടെയുള്ള ഒരു വിധം റസ്റ്റോറന്റുകൾ എല്ലാതും അടച്ചു പോയി അവിടെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഒന്നും ഇല്ല പിന്നെ ആരും അങ്ങനെ അധികം വരാറൊന്നും ഇല്ല ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് പക്ഷെ അവർ അവിടെ വലിയ ടേസ്റ്റുള്ള ഫുഡ് ഒന്നും ഇല്ല പക്ഷേ എന്നാലും അവർ അത് ഫുഡിൻ്റെ ഡെലിവറി ചാർജ്ജൊക്കെ ഭയങ്കര കൂടുതലാണ് പിന്നെ റേറ്റിംഗും കാര്യങ്ങളും ഒന്നും തീരെയില്ല അപ്പോൾ നിൻ്റെ പരിചയത്തിൽ ഏതെങ്കിലും നല്ല കട റേയ്റ്റിങ്ങൊക്കെ ഉള്ള നല്ല റസ്റ്റോറന്റുകൾ ഉണ്ടോ പിന്നെ നല്ല അറേബ്യൻ ഫുഡ് ഒക്കെ കിട്ടുന്നത് എനിക്കാണെങ്കിൽ മറ്റേ അൽ ഫാമും ഷവായി ചിക്കനൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര എന്താ പറയുക ഭയങ്കരമായിട്ട് ഇങ്ങനെ ആർത്തി കൂടി നിൽക്കുകയാണ് ആ അപ്പൊ നിൻ്റെ അറിവില് ഏതെങ്കിലും ഒരു നല്ല റേയ്റ്റിങ്ങൊക്കെ ഉള്ള അതുപോലെ തന്നെ ഡെലിവറി ഹോം ഡെലിവറി ഒക്കെ ഉള്ളത് നല്ല ഒരു റസ്റ്റോറൻറ് ഉണ്ടെങ്കി പറഞ്ഞു തരണം എഹം മെയി അത് മെയിനായിട്ട് അവിടെ റസ്റ്റ് അറേബ്യൻ ഫുഡ്സൊക്കെ കിട്ടണം ഏ പിന്നെ നല്ല ടേസ്റ്റ് വേണം എ ഞാനൊക്കെ പ പഴയ ഞാൻ വേടിച്ചിട്ടുണ്ടായിരുന്ന റസ്റ്റോറൻസിലൊക്കെ ഭയങ്കര ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ചില ചില ഐറ്റംസിന് ഭയങ്കര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ് അപ്പം ഏതെങ്കിലും നല്ല റസ്റ്റോറൻറ് ഉണ്ടെങ്കിൽ പറഞ്ഞു തായോ അവിടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചാർജ് എത്രയാണ് അവിടെ എത്രയാണ് റേറ്റ് വരുന്നത് എന്നൊക്കെ ഓക്കെ